ഇന്ത്യൻ ശാസ്ത്രജ്ഞരെക്കുറിച്ച് എൻ്റെ പഠന കാലത്ത് ഞാൻ വളരെയധികം പഠിച്ചിട്ടുണ്ട് ഒരു പ്രമുഖ ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ കലാം രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ഇന്ത്യയുടെ പതിനൊന്നാമത് രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചു അദ്ദേഹം ഒരു ബഹിരാകാശ എഞ്ചിനീയർ കൂടി ആയിരുന്നു ഇന്ത്യയുടെ അണുവായുധ പദ്ധതിയിൽ പങ്കാളിയായി ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ വലുതായിരുന്നു ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹു ബഹുമതിയായ ഭാരതരത്നം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം നേടി നേടി അദ്ദേഹം നേടി മറ്റൊരു പ്രമുഖ ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞനായിരുന്നു സി ആർ റാവു അദ്ദേഹം അദ്ദേഹം സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോബബിലിറ്റി എന്നീ മേഖലകളിൽ പ്രധാനമായും സംഭാവനകൾ ചെയ്തത്